ഞാൻ എൻ്റെ പാചക രീതിയിൽ കൂടുതലായിട്ടും അരി ഭക്ഷണങ്ങളാണ് ഉണ്ടാക്കാറ് അതുപോലെ തേങ്ങ അരച്ച കറികളും മീനും അതുപോലെ ചിക്കൻ ബീഫ് അതൊക്കെ തേങ്ങ അരച്ചിട്ടും കറി വയ്ക്കാറുണ്ട് അതിൽ തേങ്ങ തേങ്ങ കൂടുതലായിട്ടും വേണ്ട ആവശ്യമുണ്ട് തേങ്ങയരച്ച കറികൾ വയ്ക്കുമ്പോൾ ചോറിനാണെങ്കിൽ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ചാറ് അതുപോലെ തക്കാളിച്ചാറ് തേങ്ങ മറ്റേ മീൻ മീൻകറി മീൻകറി മീൻകറി തേങ്ങയരച്ച് വച്ചത് അതിനൊക്കെ ഞാൻ തേങ്ങ ഉപയോഗിക്കാറുണ്ട് അതുപോലെ പിന്നെ കാപ്പി ചായ എൻ്റെ വീട്ടിൽ കൂടുതലായിട്ടും ഈ അച്ഛനും അമ്മയ്ക്കൊക്കെ കൂടുതൽ വേണ്ടത് കാപ്പി നന്നായിട്ട് കുടിക്കുന്ന ആൾക്കാരാണ് അതുപോലെ പഞ്ചസാര പഞ്ചസാര ഒഴിച്ചു കൂടാത്തൊരു ഒരു സാധനം തന്നെയാണ് പഞ്ചസാര എന്നുവച്ചാൽ ഒരു പത്ത് ദിവസത്തേക്ക് അഞ്ച് കിലോ പഞ്ചസാര തീരുന്നൊരു വീടാണിത് നന്നായിട്ട് അതുപോലെ തേങ്ങയും മസാല എല്ലാം ഉപയോഗിക്കും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അരി തന്നെയാണ് പച്ചരി പച്ചരി അതുപോലെ ചോറ് വയ്ക്കണത് പുഴുങ്ങലരി അതൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്